ഇപ്പോൾ മത്സ്യ ബന്ധനത്തിന് നമ്മള് ഉപയോഗിക്കുന്ന ബോട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് പല രീതിയിലുള്ള ബോട്ടുകള് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഓരോ ആൾക്കാരുടെ ഒരു സാമ്പത്തിക സ്ഥിതിവച്ചിട്ട് വേണം ഓരോ ബോട്ടുകളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വലിയ ബോട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാർക്ക് പോവാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ഒരുപാട് മത്സ്യത്തെ പിടിക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്ന ബോട്ടുകളായിരിക്കും പക്ഷെ എല്ലാവർക്കും അത് ചിലപ്പം മേടിക്കാൻ പറ്റി എന്നൊക്കെ വരില്ല കാരണം അങ്ങനക്കെ നല്ല രീതിയിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇപ്പം അപ്പം അതിനനുസരിച്ചുള്ള ബോട്ടും കാര്യങ്ങളക്കെ ആയിരിക്കും എല്ലാവരും വാങ്ങുക അപ്പം ചെറിയ രീതിയിലുള്ള ബോട്ടുകള് കാര്യങ്ങളൊക്കെയുണ്ട് ചെറിയ രീതിയിലുള്ള മത്സ്യബന്ധനവും കാര്യങ്ങളക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് വലിയ രീതില് ചെയ്യുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അവര് അവരുടെ സാമ്പത്തിക സ്ഥിതിവച്ചിട്ട് വേണം ഓരോ ബോട്ടുകളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല രീതിയിലുള്ളൊരു ചിലവും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മുടെ അടുത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ ബോട്ടാണപ്പം അതിൽ നിന്നാണ് നമ്മള് പണ്ട് മുതലേ ചെയ്യുന്നൊരു ബോട്ടിങ് അതായത് ഈ ഫിഷിങ് കാര്യങ്ങളക്കെ ചെയ്യുന്നത് അപ്പം ആ ബന്ധുവിൻ്റെ അടുത്തുനിന്നാണ് നമ്മള് അവർക്കൊരു വാടകയിട്ട് അങ്ങനെ കൊടുക്കും അപ്പം ഇതുവരെയിട്ട് ബോട്ട് സ്വന്തായിട്ട് മേടിച്ചിട്ടില്ല ഇനിയൊന്ന് മേടിക്കണമെന്നൊക്കെയുണ്ട് അപ്പം അപ്പനങ്ങനെ പറയാറുണ്ട് മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്